ഇവിടെ ഒരുപാട് ഹെൽത്ത് സ്പെഷ്യൽ ഹെൽത്ത് കെയർ സൗകര്യങ്ങളുണ്ട് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും സ്ത്രീകളുടെ പ്രസവ പരിചരണം ശിശുരോഗ ചികിത്സ വാർധക്യ സഹജമായ രോഗങ്ങൾ എല്ലാത്തിനും ഇവിടെ സ്പെഷ്യൽ കെയറുണ്ട് വാർധക്യ സഹജമായ രോഗങ്ങൾക്ക് പാലിയേറ്റീവ് കെയറുകളുണ്ട് പ്രസവ ചികിത്സകൾക്കും മറ്റും പ്രത്യേകം പ്രത്യേകം ആശുപത്രികളുമുണ്ട് പ്രസവ പരിചരണത്തിന് പ്രത്യേകം അതിന് വേണ്ടി മാത്രമായിട്ടും അതവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലാണ് ഒരു ആശുപത്രിയാണ് എന്ന് തോന്നിക്കാത്ത തോന്നിക്കാത്ത വിധം ആണ് അവരത് ചെയ്തിരിക്കുന്നത് അത്രയും ആളുകളെ കംഫർട്ടാക്കുന്ന പോലത്തെ സ്ഥലങ്ങളാണ് എല്ലാം